ആ വരൂ ഇരിക്കൂ ആ എന്താ പേര് ആ എത്ര പെർസെന്റേജുണ്ട് ആ ഒരു അവേർനെസ്സ് ക്ലാസ്സല്ലേ ആ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് പോകാനാണ് താല്പര്യം അല്ലേ ഓ ബി ടെക്ക് ആണോ നോക്കുന്നത് ആ ഓക്കെ അതിലിപ്പോൾ ഏതാ ഐ ടി ആണോ അതോ സിവിൽ അങ്ങനെ ഏതാ ഐ ടിയാണോ നോക്കുന്നത് ആ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷനുണ്ട് ഒന്നുമില്ലെങ്കിൽ എല്ലാവരും എടുക്കുന്നതുപോലെ പ്ലസ് ടു എടുത്ത് കമ്പ്യൂട്ടർ സയൻസ് എടുത്തിട്ട് നിങ്ങൾക്ക് എൻട്രൻസ് എക്സാം എഴുതിയിട്ട് നേരെ ഡയറക്റ്റ് ആയിട്ട് ബി ടെക്കിലേക്ക് വരാം അതല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ടെൻത്ത് കഴിഞ്ഞതല്ലേ ടെൻത്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ത്രീ ഇയർ ത്രീ ഇയറിൻ്റെ ഡിപ്ലോമ കോഴ്സ് അറ്റൻഡ് ചെയ്യാം അപ്പോൾ ത്രീ ഇയർ ഡിപ്ലോമ കഴിഞ്ഞിട്ട് ഡിപ്ലോമ ഒരു എഞ്ചിനീയറിംഗ് ആണ് പക്ഷെ നമ്മളൊരു എഞ്ചിനീയറിംഗ് ആണ് പക്ഷെ ബിടെക്കിനെക്കാട്ടിലും താഴെയൊരു ലെവലാ വരുന്നുണ്ടാവുക നമ്മളൊരു സൂപ്പർവൈസർന്നൊക്കെയേ പറയുകയുള്ളൂ എന്നാലും എഞ്ചിനീയറിംഗ് പോലെത്തന്നെ യാണ് അതുകഴിഞ്ഞിട്ട് ഡിപ്ലോമ ത്രീ ഇയർ കമ്പ്ലീറ്റ് ചെയ്തുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ബി ടെക്ക് സെക്കൻഡ് ഇയറിലേക്ക് നേരെ അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ നാല് ഇയർ ബി ടെക്ക് എന്നുള്ളത് നിങ്ങൾക്ക് മൂന്നു ഇയറില് പഠിച്ചു തീർക്കാൻ പറ്റും ആ അതും അല്ലായെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ഓപ്ഷൻ കൂടെ നിർത്താം നിങ്ങൾക്ക് പ്ലസ് ടു കമ്പ്ലീറ്റ് ചെയ്യാം പ്ലസ് ടുവിൻ്റെ കൂടെത്തന്നെ നിങ്ങൾക്ക് ഡിപ്ലോമ എടുക്കാം ഡിപ്ലോമ എടുത്തുകഴിഞ്ഞിട്ട് വീണ്ടും നിങ്ങൾക്ക് ബി ടെക്ക് എടുക്കാം എന്താ ഒരുപാട് ഇയർ പോകുമെന്നേ ഉള്ളൂ അതായതിപ്പോൾ പ്ലസ് ടു നിങ്ങൾ രണ്ടുവർഷം കഴിഞ്ഞിട്ട് പ്ലസ് വൺ പ്ലസ് ടു രണ്ടുവർഷം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഡിപ്ലോമ ചെയ്ത് നേരെ സെക്കൻഡ് ഇയറിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ മൂന്ന് ഇയർ ഡിപ്ലോമ ഉള്ളത് നിങ്ങൾ രണ്ട് ഇയർ കൊണ്ട് പഠിച്ചു തീർക്കാം അതുകഴിഞ്ഞിട്ട് വീണ്ടും നിങ്ങൾക്ക് ബിടെക്കിലേക്ക് വീണ്ടും ലാറ്ററൽ എൻട്രി പ്രകാരം നാലുവർഷത്തെ ബി ടെക്ക് മൂന്നുവർഷം കൊണ്ട് ചെയ്തുതീർക്കാം അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട് നിങ്ങളേതാണ് ചൂസ് ചെയ്യുന്നത്

എന്താ നിങ്ങൾ ബിടെക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതുവഴിയിൽ വേണമെങ്കിലും എടുക്കാം നിങ്ങൾക്ക് പ്ലസ് ടു പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്ലസ് ടു പഠിച്ചുകഴിഞ്ഞു എൻട്രൻസ് എഴുതിയിട്ടേ കീം എക്സാം എഴുതിയിട്ട് നിങ്ങൾക്ക് ബിടെക്ക് കേറാം കീം എക്സാമെന്നു പറയുമ്പോൾ അറ്റെൻഷൻ എന്താണ് ആ ബിടെക്ക് ആണെടുക്കേണ്ടത് പക്ഷെ നിങ്ങക്കിപ്പോൾ പത്തുകഴിഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾക്ക് ഡിപ്ലോമയും എടുക്കാൻ പറ്റും അതുപോലെത്തന്നെ പ്ലസ് ടു കഴിയും നിങ്ങൾക്ക് ഏതെടുക്കണമെന്നാണ് ഡൌട്ട് എന്നാണ് തോന്നുന്നത് അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ എന്താ നിങ്ങൾക്ക് പ്ലസ് ടു ചെയ്യാം പ്ലസ് ടു ചെയ്തുകഴിഞ്ഞിട്ട് കീം എക്സാം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ബിടെക്കിലേക്ക് കേറാം അപ്പോൾ എന്താ പറയുക പ്ലസ് ടു രണ്ടുവർഷം കീം ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ അങ്ങനെ അപ്പോൾ ഒരു ആറുവർഷത്തിനുള്ളില് നിങ്ങൾക്ക് ബിടെക്ക് കമ്പ്ലീറ്റ് ചെയ്യാൻ പറ്റും അതല്ല നിങ്ങള് ടെൻത്ത് കഴിഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾക്ക് ഡിപ്ലോമ പഠിക്കണമെന്നുണ്ടെങ്കിൽ മൂന്ന് ഇയർ ഡിപ്ലോമ പഠിക്കാം അതുകഴിഞ്ഞിട്ട് നിങ്ങക്ക് ഡയറക്റ്റ് ആയിട്ട് ലാറ്ററൽ എൻട്രി പ്രകാരം ബിടെക്ക് സെക്കൻഡ് ഇയറിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും അങ്ങനെ വെച്ചുനോക്കുമ്പോൾ ഒരു സിക്സ് സെവൻ ഇയേഴ്സിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ബിടെക്ക് എടുക്കാൻ പറ്റും അഥവാ നിങ്ങൾക്ക് പ്ലസ് ടൂവും വേണം ഡിപ്ലോമയും വേണം ബിടെക്കും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ രീതീയിൽ ചെയ്യാം നിങ്ങളേത് ചെയ്താലും നിങ്ങളുടെ യുവർ എഡ്യൂക്കേഷൻ ലെവൽ എന്നു പറയുന്നത് ബിടെക്ക് ആണ് അപ്പോൾ നിങ്ങൾക്ക് ഈ രണ്ട് ഈ ഇത്രയും പാത്തുകളുണ്ടെന്നാണ് ഞാൻ പറഞ്ഞുവരുന്നത് ആ ഓക്കെ എന്നാൽ